ഇപ്പം കേരളത്തിലൊക്കെ വരുന്ന വ്യവസായങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലായിട്ടും വരുന്നത് എന്താ പറയുക കൂടുതലും കൃഷി പര ഇതൊക്കെ ആയിട്ടാണ് ആൾക്കാർ മുൻപോട്ട് പോകുന്നത് അപ്പം കൃഷിയിലൊക്കെ നല്ല രീതിക്ക് ഇപ്പം ആണുങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് കൃഷി ഒക്കെ ഇപ്പം പകുതി ആൾക്കാരും നിർത്തി എന്താ പറയുക ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണ് ചെയ്യുന്നത് അപ്പം കൃഷി ചെയ്യാണ്ട് ഇപ്പം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വലിയ കാര്യം ഒന്നും ഇല്ല കാരണം ഇപ്പം സമൂഹത്തിൽ കൃഷികളൊക്കെ കുറഞ്ഞ് വരുന്നതോട് കൂടി ആൾക്കാരൊക്കെ എന്താ പറയുക വലിയ കാര്യമായിട്ട് വ്യവസായങ്ങളൊന്നും നടക്കുന്നില്ല കാരണം ഇപ്പം റബ്ബർ ആയിക്കോട്ടെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്താലാണ് നമുക്ക് ടയറും കാര്യങ്ങളും അങ്ങനെ ഉള്ളതൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് കൃഷിക്കാരില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൂടുതലാൾക്കാരും കൃഷി പകുതി ആൾക്കാരും കൃഷി ചെയ്യുമ്പോൾ അതിന് മുൻപോട്ട് കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അത് അങ്ങനെ ശ്രമിച്ചാലും വ്യവസായ പരമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളു കൂടുതലും സാധനങ്ങൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും അപ്പം നമ്മുടെ സമൂഹത്തിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുകൊണ്ട് കുറേ സംരംഭങ്ങൾ നമുക്ക് മുൻപോട്ട് കൊണ്ട് വരാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്